ഹലോ വൈഗാ ട്രാവൽസല്ലേ ഞാൻ കപ്രശ്ശേരീയിൽ നിന്ന് മഞ്ജു ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമായി ഞാൻ വിളിക്കുന്നത് ഞാനൊരു കാറ് ബുക്കെയ്തതല്ലേ എനിക്ക് നയൻ തേർട്ടിക്കേങ്കിലും ആലുവയില് എത്തണ്ടതായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് അവിടെ എനിക്ക് വേണ്ടി വൈയ്റ്റ് ചെയ്യുകയാണ് എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കുന്നു വിളിക്കുമ്പോൾ നിങ്ങൾ വണ്ടി പോന്നിട്ടുണ്ട് പോന്നിട്ടുണ്ട് എന്ന് പറയുക അല്ലാതെ വണ്ടി ഇവിടെ എത്തുന്നില്ലല്ലോ എത്തിയിട്ടില്ല എന്നാൽ ഡ്രൈവറുടെ നമ്പർ തരാൻ പറഞ്ഞാൽ അതും നിങ്ങൾ തരുന്നില്ല ഞാനിപ്പോൾ എന്താണ് ചെയ്യണ്ടത് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ വിളിച്ചു അവർക്ക് അവരുടെ വണ്ടി വന്ന് അവര് ദേ പോയി ഇനി ഞാനെന്ത് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും റീസണ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞൂടായിരുന്നോ ഞാൻ എൻ്റെ വേറെ ഏതേലും വണ്ടി അറേഞ്ച് ചെയ്ത് അവിടെ എത്തി പോകുവില്ലെ ഇപ്പോൾ എൻ്റെ ഒരു നല്ലൊരു ട്രിപ്പാണ് നിങ്ങള് കാരണം ക്യാൻസലായിപ്പോയത് ഇതുപോലത്തേയുള്ള മോശം ആറ്റിറ്റ്യൂട്ട് ആണിങ്ങനെ ട്രാവൽസാര് ചെയ്യേണ്ടത് ഞാനിനി ഞാനിപ്പോൾ എന്താ ചെയ്യുക എനിക്കിനി ട്രിപ്പിന് പോകാൻ പറ്റത്തില്ല നിങ്ങളെ ഫസ്റ്റേ ആദ്യമേ ആദ്യത്തെ പ്രാവശ്യം വിളിച്ചപ്പഴേ നിങ്ങൾ പറയുകയാണ് വണ്ടി കംപ്ലെയിന്റ് ആണ് അല്ലെങ്കിൽ ഡ്രൈവറില്ല എന്തെങ്കിലൊരു എക്സ്ക്യൂസ് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ വേറെ വണ്ടി വിളിച്ച് പോയിക്കൊണ്ടേനെ ആയിരുന്നു ഇപ്പോൾ അതും ഇല്ല ഇതും ഇല്ലാത്ത ഒരവസ്ഥയാണ് ഇങ്ങനൊന്നും ഒരാളോടും ചെയ്യരുത് ഇനി മേലാൽ ഇത്രയും നാളും ഞാൻ നിങ്ങളുടെ ട്രാവൽസിൽ നിന്ന് വണ്ടി വിളിച്ച് പോയിട്ടുണ്ട് ഇതുവരെ ഒരു മോശം പ്രവർത്തി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഉണ്ടെങ്കി അത് തൊറന്നു പറയാണെങ്കി നമക്കത് ഉപകാരല്ലേ വേറെ വണ്ടി വിളിച്ച് നമ്മൾ എങ്ങനെങ്കിലും പോയി ആ സ്ഥലത്ത് എത്തും